ഇപ്പോൾ കേരളത്തില് പ്രധാനമായിട്ടും സമുദായ സംഘടനകള് ഇഷ്ടംപോലെയുണ്ട് പലരീതിയിലുള്ള രാഷ്ട്രീയപാർട്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തില് ഇഷ്ടംപോലെയുണ്ട് ഇപ്പം സമുദായപാർട്ടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ എസ് എസ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുസ്ലിംലീഗിൻ്റെ അത് അവരുടെ ഒരു സമുദായ സംഘടനയും കാര്യങ്ങളൊക്കെയാണ് അവർടേതായിട്ടുള്ള മതത്തിൻ്റെ പേരിലാണ് അവര് അത് തുടങ്ങീരിക്കുന്ന പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഹിന്ദുക്കളുടെ ആർ എസ് എസ് ൻ്റെ അതായത് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമുദായ സംഘടനയും കാര്യങ്ങളൊക്കെയുണ്ട് പലരീതിയിലുള്ളൊരു സംഘടനകളൊക്കെ നമ്മളുടെ കേരളത്തില് ഇഷ്ടംപോലെ എല്ലാസ്ഥലങ്ങളിലും കാണാവുന്ന ഒന്നാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പലരീതിയിലുള്ള സാംസ്കാരിക പദ്ധതി പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും നടത്തുന്നുണ്ട് ഇവരൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവരുടെതായിട്ടുള്ളൊരു മതവും കാര്യങ്ങളൊക്കെ അവര് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് അപ്പം അവരുടെ മതത്തിൽ പെട്ടവര് മാത്രമേ അങ്ങനത്തുള്ള സമുദായ സംഘടനകളിലൊക്കെ വരികയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമത്വ സമാജ സമാജം അങ്ങനത്തെ രൂപീകരണോം കാര്യങ്ങളൊക്കെ നമ്മടെ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് പലരീതിയിലുള്ള മത പരമായിട്ടുള്ള ഭിന്നതകളും കാര്യങ്ങളൊക്കെ ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടുംണ്ടാകും